പൗരന്മാർ സംരക്ഷിക്കുന്നതാണ് സമൂഹത്തിലെ സമാധാനം നിലനിർത്തേണ്ട ഒരു ആവശ്യമായ വേറെ ഒരു വലിയ ഒരു ഘടകമാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സമാധാനം നഷ്ടപ്പെട്ട് കൊണ്ട് പോയിക്കൊണ്ടിരിക്കയ ആ സമാധാനത്തെ വീണ്ടെടുക്കേണ്ട ആവശ്യമുണ്ട് അത് ഒരു രീതിയിൽ അല്ല പല രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സമാധാനം നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കയാണ് അപ്പം അതായത് ഒരു കാര്യം പറയുമ്പോൾ അത് സമാധാനത്തോടു കൂടി ഒരു വീട്ടിലിരുന്നു കൊണ്ട് ഒരു കാര്യം പറയുമ്പോൾ ഒരു വീട്ടിൽ നടത്തേണ്ടതായ ഒരു കാര്യം പറയുമ്പോൾ സമാധാനത്തോടെ വീട്ടിലുള്ളവരോട് കൂടിയിരുന്നോണ്ട് ആലോചിക്കുന്ന സമാധാനത്തോടു കൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് ആ പ്രശ്നത്തിൻ്റെ ഒരു കണ്ടെത്തലുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് അസമാധാനത്തിൻ്റെ എന്തേലും മേഖല ഉണ്ടെങ്കിൽ അത് അധികാരികളെ നമ്മൾ അറിയിച്ച് അവിടുന്ന് ഒരു സമാധാനത്തിന് വേണ്ടിട്ട് സംസാരിച്ച് ആ വിഷയങ്ങളെ തീർക്കേണ്ടതും ഒരു ആവശ്യമാണ് ആവശ്യമാണ് ഈ സമാധാനം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുവാണ് സമാധാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് തെറ്റുകളെ തിരുത്തിക്കൊണ്ട് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഒരു ശരിക്കും കലുഷ്യനായി നിൽക്കുന്ന മകൻ്റെ ഒരു മകൾടെയും ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെ ഭാഷകളും സംസാരങ്ങളും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സ്നേഹ സംഭാഷണങ്ങളും ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഈ സമാധാനം ഉണ്ടാകും പിന്നെ ഈ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് ഒരു കാര്യങ്ങളെ കേൾക്കുമ്പോൾ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതാക്കി കൊണ്ട് പോവാണ് ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങൾ അത് വലുതാക്കി വലിയ വിഷയങ്ങളാക്കി മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക അത് ഇങ്ങനായിരുന്നു വലിയതായിരുന്നു ഓ അങ്ങനെ ഒക്കെയാണോ അപ്പം അതിനോട് നമുക്ക് പ്രതീകരിക്കുന്ന മറ്റ് കേൾക്കുന്ന ആളും പ്രതീകരിക്കയാണ് അപ്പം ആ സമാധാനം അവിടെ കടന്നു വന്ന് കുറ്റകൃത്യം പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വലിയ ഒരു ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ കേട്ടത് വലിയ പ്രശ്നങ്ങൾ പിന്നെ കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നു പോവാറുണ്ട് കുറ്റകൃത്യങ്ങളിലേക്ക് കടന്ന് പോകുമ്പഴ്ത്തേന് ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം വാക്കു കൊണ്ടാണെങ്കിൽ പിന്നെ കൈ കൊണ്ടായിരിക്കും കുറ്റങ്ങൾ കുറ്റങ്ങൾ ചെയ്യുന്നത് അതിങ്ങൾ പിന്നെ പ്രവൃത്തിയിലൂടെ ഇങ്ങനെ ചെയ്യാണ് ഇപ്പോൾ ആരേം അംഗീകരിക്കാതെ ഇരിക്കാനുള്ള കാരണം ഇത് കൈകാര്യം ചെയ്യേണ്ടന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം രണ്ട് പാരിൽ രണ്ട് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ രണ്ട് പേരേം ചേർത്ത് നിർത്തിക്കൊണ്ട് രണ്ട് പേരുടേയും കാര്യങ്ങളെ അവരുടെ ഇതിരെ വിഷയങ്ങളെ കേട്ട് മനസ്സിലാക്കി അവരെ ചേർത്ത് ഇരുത്തിക്കൊണ്ട് അവരുടെ കുറവുള്ള കുറെ എല്ലാം പറരും അ തെറ്റ് എല്ലാം തിരുത്തി കൊടുത്തു കൊണ്ട് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നിപ്പിച്ച് കൊണ്ടരാവേണ്ടൊരു ശ്രമം അതാണ് അപ്പം ചിലപ്പോൾ ഇവിടെ വാശി ചിലപ്പം ചിലപ്പം വാശി ക്കെയായിട്ട് തോന്നും ആ വാശിയൊക്കെ വിട്ടു കളയാനുള്ള നമ്മുടെ നമ്മൾ അതിനകത്ത് ഒരു മൂന്നാം മുന്നരാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ സമാധാനത്തിൻ്റെ മേഖല ശരിക്കും അവിടെ കൊണ്ട് വരുവാനായിട്ട് ഒരു ശ്രമം നടത്തണം അല്ല ഒരു പക്ഷത്തേക്ക് ചേരാതെ കൊണ്ട് നിഷ്പക്ഷമായ രീതിയിൽ രണ്ട് പേരേം ചേർത്തി നിർത്തിക്കൊണ്ട് സമാധാനത്തിൻ്റെ ഒരു മേഖല കണ്ടെത്തി കൊടുക്കുമ്പോൾ ആവുമ്പം അതൊരു നല്ലയൊരു നല്ലയൊരു അതായത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നേക്കാളും കൂടുതലായിരിക്കും ഈ ഒരു ഇതു പോലൊരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വളരെ അനുഗ്രഹപ്രദമായും